ഞാൻ എനിക്ക് സുഖമില്ല അതുകൊണ്ട് അങ്ങനെ വിളിച്ചതാണ് തലവേദനയും പനിയും ചുമയും ആ രണ്ട് മൂന്ന് ദിവസം ആയി തുടങ്ങിയിട്ട് ഇല്ല ഇത് ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും എത്ര മണി വരെ ആറ് മണി വരെ ഉണ്ടോ ഒരു അഞ്ച് മണി ആവുമ്പോൾ എത്തിയാൽ മതിയോ

തലവേദന റോഡിൻ്റെ ഇത് പണി എല്ലാം എടുക്കുന്നതല്ലേ അപ്പോൾ അതിൻ്റെ പൊടി എല്ലാം പാറിയിട്ട്

ഇല്ല ഒന്നും കഴിച്ചിട്ട് ആയില്ല ആ ആ അതെ ആ ചുമ മാറുന്നില്ല നല്ല ചുമ ഉണ്ട് ആ തലവേദനയും ഉണ്ട് ആ ആ ശരി അഞ്ച് മണി ആവുമ്പോൾ എത്താം ആ ആ അഞ്ച് മണി ആവും ആ ആ ടോക്കൺ എടുക്കാം ആ ഇല്ല എനിക്ക് മാത്രമേ ഉള്ളൂ ആ അഞ്ച് മണി ആവുമ്പോൾ വരാം ആ ശരി വരാൻ പറ്റുമോ എന്ന് നോക്കാം ആ ജോലി ചെയ്യുന്നുണ്ട്

ആ കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പ് ആ അതെ ആ ആ ആ വരാം ഓക്കെ ബൈ ആ